ആ ചേട്ടാ നമുക്ക് ഒരു ഇരുപത്തഞ്ചു ലക്ഷത്തിൻ്റെ ഒരു വീട് നമുക്ക് വേണമായിരുന്നു ആ ആ വീട് നമുക്ക് രണ്ട് റൂം വേണം അതായത് ഒരുപാട് പഴയതും വേണ്ട എന്നാൽ ഒരുപാട് മൈൻറ്റൈൻ ചെയ്യാനൊന്നും പറ്റില്ല അത്യാവശ്യം ആളെപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊന്ന് വാങ്ങിയിടാമെന്നേ ഉള്ളൂ ഉള്ളിലോട്ടുള്ള ഏരിയയിൽ മതി അതാണ് കുറച്ചു ബെറ്റർ തോന്നുന്നത് ടൗണിൽ വേണ്ട ഒരു പത്തു സെൻറിനുള്ളില് ആ ആ അതെ ഞങ്ങളൊരു നാലു പേരേ ഉണ്ടാവുകയുള്ളൂ

അതായത് പുറമേ നോക്ക് പുറമേ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചു ട്രഡീഷണൽ മോഡലും എന്നാൽ ഉള്ളിലേക്ക് വന്നാൽ കുറച്ചു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള വീട് മതി നമുക്കൊരുപാട് എക്സ്പെൻസിവ് ആവരുത് ആ ഞാൻ അടുക്കള വേണം അല്ല അടുക്കള വേണം ആ എല്ലാം നോർമലായിട്ട് സാധാരണ പോലെ തന്നെ എല്ലാം വേണം എല്ലാ സൗകര്യവും ഉണ്ടാവണം ചിലപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി അതിലുണ്ടാവണം മ് കിണർ വേണം കിണറാണ് വേണ്ടത് ആ സ്ഥലം മുറ്റം കുറച്ചു വേണം ബാക്കിലും കുറച്ചു സ്പേസ് വേണം

മ് ആ കുറച്ച് ആ അങ്ങനത്തെ വീട് മതി കുറച്ചു മരങ്ങളൊക്കെയായിട്ട് ആ ആ അതെയല്ലേ എന്നാൽ ഒന്ന് ചേട്ടനൊന്നു നോക്കിയിട്ടൊന്നു പറയുമോ സ്ഥലം ഒന്ന് വാട്ട്സാപ്പ് ചെയ്തു തന്നേ എനിക്കൊന്നു ചെക്ക് ചെയ്യാനാണ് നോക്കാൻ എപ്പോഴാ സൗകര്യം എന്നു പറഞ്ഞാൽ വരാമായിരുന്നു ആ അതെ എപ്പോഴാ വരേണ്ടതെന്നു പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ

അതെയല്ലേ അപ്പോൾ ചേട്ടനൊന്നൊന്നു നോക്കീട്ടൊന്നു അവരോടൊന്നു പറഞ്ഞു വെക്കുമോ നമുക്കൊന്ന് പോയി നോക്കാമായിരുന്നു നാളെ ഉച്ചയ്ക്കുശേഷം ഞാൻ ഫ്രീയായിരിക്കും അപ്പോൾ നാളെ ഉച്ചയ്ക്കു ശേഷം ഒന്നു പോകാം

ആ ഓക്കെ അവരോടൊന്നു സംസാരിച്ചു വെക്കുമോ ആ അതെ അതെ ആ നല്ല കച്ചറയില്ലാത്ത ഏരിയ അല്ലേ അതെയല്ലേ ചേട്ടനൊന്നു തൽക്കാലത്തേക്ക് നാളെ വന്നു നോക്കിക്കോളാം വേറെ എന്തെങ്കിലും ഓപ്ഷനുണ്ടെങ്കിൽ അതും ഒന്നു നോക്കി വെച്ചേക്കണേ ആ ശരിയെന്നാൽ ഓക്കെ ചേട്ടാ